ഞാൻ നിർമ്മിക്കുന്ന എൻ്റെ വസ്ത്രത്തിൻ്റെ ഡിസൈൻ ഞാൻ തിരഞ്ഞെടുക്കുന്നത് കൂടുതലായും ഫോണിലൂടെ തന്നെയാണ് ഞാനതില് അതില് തിരഞ്ഞെടുത്ത നോക്ക് അതെടുത്തു നോക്കും എനിക്ക് പറ്റുന്ന വസ്ത്രങ്ങളുണ്ടോന്ന് അപ്പം ഇൻ്റർനെറ്റിൽ കയറുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാടിങ്ങനെ ഡിസൈനുകളുള്ള ഡ്രസ്സ് വസ്ത്രങ്ങളങ്ങനെ കാണും അപ്പം അതില് നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ട ഏതാണോ അത് ഞാന് എടുക്കും തിരഞ്ഞെടുക്കും തിരഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് എൻ്റെതായ കുറച്ചു രൂപകൽപ്പനകള് ചേർത്തിട്ട് ഞാനൊരു പുതിയ ഒരു ആ രീതിയിലുള്ള ഒരു വസ്ത്രം തയ്യാറാക്കും പിന്നെ ഞാന് തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും എൻ്റെ ഭർത്താവിനോടും എൻ്റെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് ചോദിക്കും ഇതെങ്ങനെ ഉണ്ട് കാണാൻ ഭംഗിയുണ്ടോ അപ്പോൾ അവര് പറയും ആ കുഴപ്പമില്ല ചിലപ്പോൾ അവര് പറയും വളരെ നന്നായിട്ടുണ്ടെന്ന് ഇതൊക്കെയാണ് എനിക്ക് പുതിയ വസ്ത്രം രൂപകൽപ്പന ചെയ്യാൻ വേണ്ടീട്ടുള്ള പ്രയോജന പ്രചോദനങ്ങള് പിന്നെ ഫോണില് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡുണ്ട് അത് മൂൺ ഗോഡ്ഡെസ്സെന്ന പറഞ്ഞിട്ടുള്ളൊരെണ്ണം അതിലിങ്ങനെ ഒരുപാട് നല്ല നല്ല ഡിസൈനുകളുള്ള വസ്ത്രങ്ങള് കാണാൻ പറ്റും അപ്പം കൈത്തുന്നലുകലുള്ളതും ഉണ്ടാവും അല്ലെങ്കില് ചായം മുക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളുണ്ടാവും ഇതെല്ലാം ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഞാന് അവരുടേതായ രീതിയിലും പിന്നെ വീഡിയോകളൊക്കെ കണ്ടിട്ടും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എൻ്റെതായ രീതിയില് കുറച്ച് രൂപമാറ്റങ്ങളും കൂടി വരുത്തീട്ടാണ് ഞാൻ തയ്യാറാക്കുന്ന ഞാൻ ഡ്രസ്സുകള് തയ്യാറാക്കുന്നത് പിന്നെ നമുക്ക് ഒരു തയ്ക്കാനറിയുന്ന അല്ലെങ്കിൽ നിർമിക്കാനറിയുന്ന ഒരാളാണെങ്കില് ഒരു തുണി നമുക്ക് മുന്നേ കിട്ടീട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഈ വസ്ത്രത്തില് ഇന്ന രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഭംഗിയുണ്ടാവും ഏതൊക്കെ രീതിയില് തയ്ക്കണം അങ്ങനെയൊരു നമ്മുടെ ഒരു സർഗാത്മഗതയും കൂടി അതിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെതായ രീതിയില് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വസ്ത്രം ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്